നവജാതശിശുവിനെ അതിൻ്റെ ആദ്യ വർഷത്തിൽ അനുഷ്ഠിക്കുന്ന വ്യത്യസ്ത ആചാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ കുഞ്ഞുങ്ങളുടെ വായിൽ തേനും വയമ്പും ഒക്കെ ചേർക്കുന്ന ഒരു ചടങ്ങ് പണ്ടുകാലം തൊട്ട് നിലനിന്നിരുന്നു പിന്നെ അതുപോലെ ഇരുപത്തി എട്ട് പ് ജനിച്ച് കഴിഞ്ഞ് ഇരുപത്തെട്ട് കെട്ടിന് ചരട് കെട്ടുന്ന അല്ലെങ്കിൽ നൂൽ കെട്ടുന്ന ഒരു സംവിധാനം ഉണ്ട് അതുപോലെ കുഞ്ഞ് ജനിച്ച് ആറ് മാസത്തിൽ കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ തലമുടി എടുക്കുന്ന ഒരു ചടങ്ങുകളും പല മതങ്ങളിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നു